പാലക്കാട് വന്നിട്ട് ക്രിസ്ത്യൻസ് ക്രിസ്മസ് എന്നി പിന്നെ കിസ് ക്രിസ്മസും ഈസ്റ്റർ എല്ലാം ഇവിടെ നല്ലതു പോലെ ആഘോഷിക്കാറുണ്ട് അതുപോലെ മുസ്ലിംസിൻ്റെ പെരുന്നാൾ വലിയ പെരുന്നാൾ ചെറിയ പെരുന്നാൾ ഇതെല്ലാം പാലക്കാട് നല്ലതു പോലെ ആഘോഷിക്കുന്നതാണ് പിന്നെ നേർച്ച ഇപ്പം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പാലക്കാട് മിക്ക മുസ്ലിം പള്ളികളിലും നേർച്ചകൾ ഉണ്ടാകും പള്ളി നേർച്ചകൾ അത് എല്ലാം വളരെ മനോഹരമായ കാഴ്ചകളാണ് പിന്നെ അതുപോലെ അമ്പല പരുപാ അമ്പലങ്ങളിലും പരുപാടികളുണ്ട് ദേശവേല വേലകൾ വിഷുവേല ഇതെല്ലാം വേലകൾ അങ്ങനെ അല്ലാതെ ദേശീയമായിട്ടും അന്തർദേശീയമായിട്ടും പോയി തനത് കലകളായ ആചാരങ്ങൾ അതുപോലെ ആ പ്രതിഷ്ഠ എല്ലാം വരുമ്പോൾ വേലകൾ പൂരങ്ങൾ എല്ലാം പാലക്കാട് ഉണ്ട് പിന്നെ അതുപോലെ പിന്നെ എല്ലാർക്കും അറിയാവുന്ന കൽപ്പാത്തി തേര് തേര് രഥോത്സവം ഇതെല്ലാമാണ് പാലക്കാട് ജില്ലയിൽ ആഘോഷിക്കാൻ പ്രധാന ഉത്സവങ്ങളും പരിപാടികളും എല്ലാം